ഞാൻ ഹാൻ പമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ എനിക്കറിയാം അതിന് ഒരു കൈപ്പിടി ഉണ്ട് ഫ്രണ്ടില് അതിൻ്റെ മുൻവശത്തായിട്ട് കുടം വയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട് സാധാരണ പൈപ്പ് പോലെതന്നെ പക്ഷേ പമ്പ് ചെയ്ത് കൈ കൊണ്ട് നമ്മളത് അമർത്തിപ്പിടിച്ച് താഴേയ്ക്ക് ചെന്ന് അത് കയ്യ് ആ ഹാൻഡിലേ വെച്ച് താഴേക്ക് അമർത്തി പൊ പിൻ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും താഴേക്ക് ആക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം നടക്കുമ്പോഴാണ് അതീന്ന് വെള്ളം പുറത്തേയ്ക്ക് വരുന്നത് അപ്പോള് പണ്ട് കാലത്തായിത് കൂടുതല് കണ്ടുവന്നിട്ടുള്ളത് ഇപ്പോള് അതിൻറ്റേ വളരെ കുറവാണ് അപ്പോള് ഹാൻ പമ്പുകളില് എന്നിട്ട് കുടുത്തിനേൻ്റെ കൂടെ ഒരു കുറച്ച് സമയം എടുക്കും കുറച്ച് വെള്ളം കിട്ടണം അപ്പോള് എപ്പോഴും കുറേ ക്യൂവ് നമുക്ക് കാണാം അതിൻ്റെ പുറകിലോട്ട് ക്യൂവ് നിന്നുനിന്നാണ് സ്ത്രീകള് കുടിവെള്ളമാണെങ്കിലും മറ്റ് സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേയ്ക്ക് കൊണ്ടുപോവുവൊക്കെ ചെയ്യുന്നെ പക്ഷെ ഇപ്പോള് അതിൻ്റെ കാലഘട്ടമൊക്കെ മാറി ഇപ്പോള് എല്ലായിടത്തും പഞ്ചായത്ത് പൈപ്പുകളുണ്ട് എല്ലാ വീടുകളിലേയ്ക്കും പഞ്ചായത്ത് പൈപ്പുകളുണ്ട് അപ്പോള് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയി പാ വെള്ളം ഹാൻ പമ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലാതെയായി എന്നാലും ചില സ്ഥലങ്ങളില് ഇപ്പോഴും ഹാൻ പമ്പ് വെയ്ത് വച്ച് വ വെള്ളം എടുക്കുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ ഒരുപാട് പേര് മുന്നോട്ടു പോകുന്നുമുണ്ട് ഇപ്പോഴും ഹാൻ പമ്പ് നീ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാല് എനിക്കങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല ഹാൻ പമ്പ് വച്ചിട്ട് നീണ്ട ക്യൂ നില്ക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല നമുക്ക് നമ്മുടെ നാട്ടില് കുറച്ചുകൂടി പാ പൈപ്പുകള് ലഭ്യമാണ് പിന്നെ കിണറുകളുമുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വേനലധികം ഉള്ള ഒരു പ്രശ്നം പ്രദേശത്തല്ല മഴ ആവശ്യത്തിന് ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് വേനൽക്കാലത്ത് അതില് പൊതുവെ ആ ഒരു ഹാൻ പമ്പില് വെള്ളം ഒന്നും ഉണ്ടാവാറില്ല